ഹലോ ഡോക്ടറെ എനിക്ക് ഭയങ്കര പനിയാണ് ടെസ്റ്റ് ചെയ്തപ്പോൾ കൊറോണ ഉണ്ടെന്നാ പറഞ്ഞത് അപ്പോൾ പനി വല്ലാണ്ട് കൂടുതലായിരുന്നു അപ്പോൾ ഒന്നു കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്തതാ അപ്പോൾ ഭയങ്കര കൂടുതലാ ആ ആ ക്വാറന്റൈൻ ഇരിക്കാൻ പറഞ്ഞിരുന്നു അങ്ങനെത്തന്നെയാ ഇരിക്കുന്നതിപ്പോൾ അതെ അപ്പോൾ അത് പനി വരില്ല അതാ ഞാൻ സാർ സാറിന്റെയടുത്ത് വന്നത് വേറെ ആർക്കും ഒന്നും വന്നിട്ടില്ല ഇനിയിപ്പോൾ നമ്മൾ ഒരു റൂമിലാണ് ഇരിക്കുന്നത് ഭയങ്കര ചുമയും കാര്യങ്ങളൊക്കെയാ ഭയങ്കര ചുമയാ

ആഹ് അങ്ങനെയായിരിക്കും

ആ ആ കുറഞ്ഞു കുറഞ്ഞു പറയാൻ വേണ്ടി ആ

ആ അവർ നമുക്ക് ഇവിടെ കൊണ്ടുവന്നു വാതിൽക്കൽ അവിടെ വെയ്ക്കും പുറത്തു വെയ്ക്കും ഞാൻ എടുക്കും ആ ആ എടുക്കാം ആ എഴുതിക്കോ എന്നാൽ എഴുതിക്കോളി

ഇല്ല രണ്ടുമൂന്നു ദിവസമായിട്ടേ ഉള്ളൂ ഇപ്പം കുറയുന്നില്ല അതാ പിന്നെ കുറയുമെന്നു ആഹ് കാണിച്ചു അപ്പോൾ കുറയുന്നില്ല അപ്പോൾ അതാണ് സാറെ കാണിക്കാമെന്നുള്ളത്

കാണിച്ചത് ഇവിടെ അടുത്തുള്ള ഒരു ഡോക്ടറാണ് നമ്മൾ തോണിച്ചാലെന്നു പറയുന്ന സ്ഥലത്ത് ഒരു ഡോക്ടറുണ്ട് ആ ഡോക്ടറെയാ കാണിച്ചത് ആ പിന്നെ മഞ്ഞൾ വെള്ളമെല്ലാം കുടിക്കുന്നുണ്ട്